ആ ഹലോ ആ ഓക്കേ പഠിത്തത്തിലെന്താണ് ആ പഠിത്തത്തിൽ നല്ല ഉഷാറുണ്ട് എല്ലാം പഠിക്കുന്നൊണ്ട് ആ ഉഷാറുണ്ട് ആ എഴുതുന്നുണ്ട് വായിക്കുന്നുണ്ട് ക്വസ്റ്റ്യൻ ആൻസർ പറയുന്നുണ്ട്

അങ്ങനെ ലീവ് അടുത്തയാഴ്ചയിൽ പിന്നത്തെയാഴ്ച എക്സാം ഉണ്ടല്ലോ അപ്പോൾ ലീവ് എങ്ങനെയാണിപ്പോൾ ഉം ഉം ആ ആ ആ അത് എത്ര എത്ര ദിവസം ലീവ് ആണ് നിങ്ങൾക്ക് ഒരാഴ്ച വേണോ ഓക്കെ ആ ആ ഓക്കെ ഓക്കെ തരാം ആ ആയിക്കോട്ടെ ഓൾ പഠിക്കുന്നുണ്ട് ആ പഠിക്കുന്നുണ്ടല്ലോ അതുകൊണ്ട്

പിന്നത്തെയാഴ്ച ആ കൊടുത്തിട്ട് ആയി ആ ആ ആ ആയിട്ടുണ്ടാവും ആയിട്ടുണ്ടാവും എക്സാം ഉണ്ട് അടുത്തയാഴ്ച ആ ആദ്യം ലാംഗ്വേജ് അല്ലേ ലാംഗ്വേജ് അല്ലേ ഉം അതെ ആ ആയിക്കോട്ടെ ഓക്കെ ആ ഓക്കെ ആ ആ ഓക്കെ ഓക്കെ ആ ശരി